ആയുർവേദ ഹോസ്പിറ്റലാണോ നടുവേദനയ്ക്ക് ഉള്ള എന്തേലും പറയാൻ അറിയാൻ വേണ്ടി വിളിച്ചതാണ് രണ്ടു മാസമായി

എനിക്കില്ല ആ അത്രയ്ക്ക് ഒന്നുമില്ല ഒറ്റമൂലിയാണ് ആ ഡോക്ടർ വിളിച്ചോണ്ടിരിക്കുക ആ ശരി

എത്ര രൂപയാകും എനിക്ക് വയ്യ ഞാൻ കട്ട് ചെയ്യും